ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയവും ജീവിക്കുന്നത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ആണ് ഈ പൈസ ഉണ്ടാകുന്നതിലൂടെ വളരെ പെട്ടന്നു തന്നെ അവൻ്റെ ജീവിത നിലവാരം മുഴുവനായി ഉയരുവാനും അവന് മറ്റുള്ളവരിൽ നിന്നുള്ള പ്രചോദനങ്ങൾ വളരുവാനും ഈ പണത്തിലൂടെ നമുക്ക് സാധിക്കുന്നു ഈ പണം ഉണ്ടാക്കാനുള്ള ഒരു വഴിയാണ് കായിക വിനോദം അഥവാ കളികൾ എന്ന് പറയുന്നത് ഈ നല്ല രീതിയിൽ നമ്മുടെ കളികൾ നമ്മളുടെ ജീവിതത്തിൻ്റെ ജീവിത നിലവാരത്തെ ഉയർത്തുന്നതിൽ വളരെ നല്ലൊരു പങ്കുവഹിക്കുന്നുണ്ട് കാരണം നമ്മൾ നമ്മളുടെ കായിക വിനോദത്തിൽ വളരെ ഉയർന്ന ഒരു നിലവാരത്തിലേക്ക് എത്തുകയാണെങ്കിൽ അതുമൂലം നമുക്ക് നമ്മുടെ ജീവിതത്തിലും ഉയർച്ച ഉണ്ടാകും എന്നത് തീർച്ചയാണ് കളിയിൽ വളരെ മികവ് പുലർത്തിയാൽ നമ്മൾക്കു അതിലൂടെ അതൊരു വരുമാനം ആവുകയും ആ വരുമാനം നമ്മുടെ ജീവിത നിലവാരത്തെ മൊത്തത്തിൽ ഉയർത്തുവാൻ സാധിക്കും എന്നുള്ളതാണ് ഒരു സത്യം ഈ കായിക വിനോദം നമ്മളുടെ ജീവിതത്തിൽ ഒരു വളരെ ത്വാതികമായ ഒരു നിലവാരം ജീവിത നിലവാരം ഉയർത്തുന്നു എന്നതിൽ ഒരു സംശയവും ഇല്ല ഈ കളികൾ നമ്മൾ വളരെ മികവ് പുലർത്തി വളരെ ശ്രദ്ധയോടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മറ്റ് ഒന്നിലും ഇടപെടാതെ കളിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നമ്മൾക്ക് ഈ കളി എന്നു പറയുന്ന ഒരു മേഖലയിൽ മികവ് പുലർത്താൻ കഴിയും അങ്ങനെ നമ്മൾ മികവ് പുലർത്തിയാൽ നമ്മളെ മറ്റുള്ളവർ ശ്രദ്ധിക്കുകയും മറ്റുള്ളവരിലൂടെ നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തുവാനും സാധിക്കും ഈ ലക്ഷ്യങ്ങളിലേക്ക് എത്തുവാനുള്ള ഒരു ഘടകമാണ് പണം എന്നു പറയുന്നത് സോ ഈ കായിക വിനോദങ്ങൾ നമ്മൾക്ക് വളരെ നല്ല രീതിയിൽ പണം സമ്പാദിക്കുവാനുള്ള ഒരു രീതിയാണ് എന്നാൽ മറ്റുള്ളവർക്ക് അതൊരു സമയം പോക്കുമാണ് എന്നു വെച്ചാൽ നമ്മൾ നമ്മളുടെ കളി നിലവാരം ഉയർത്തുന്നതിലൂടെ നമ്മുടെ ജീവിത നിലവാരത്തെയും പരോക്ഷമായി ഉയർത്തുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ജീവിത നിലവാരത്തെ ഉയർത്തണമെങ്കിൽ നമ്മൾക്ക് പണം ആവശ്യമാണ് ഈ പണത്തിൻ്റെ ലഭ്യത കൂട്ടണമെങ്കിൽ നമ്മൾ നമ്മളുടെ കളിയുടെ രീതി വളരെയധികം ഉയർത്തേണ്ടതാണ് സോ നമ്മളുടെ കളി രീതിയെ നമ്മൾ വളരെ മികച്ച രീതിയിൽ മികവു പുലർത്തിയാൽ നമ്മളുടെ ജീവിത നിലവാരവും അതിന് അനുസൃതമായി വളരുന്നതാണ് എന്നതാണ് ഒരു പ്രധാന ഘടകം